പതിമൂന്ന് പത്ത് രണ്ടായിരം ഇരുപത്തിരണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനേഴ് നാല് രണ്ടായിരത്തി പന്ത്രണ്ട്